വ്യാപാരത്തിനും വാണിജ്യത്തിനും മലയാള ഭാഷത്തെ നമ്മുടെ നാട്ടിലാണ് കൂടുതലായിട്ടും ആ ഈയൊരു ഇത് ഉള്ളത് എ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തുള്ള രാജ്യങ്ങളിലും പുറത്തുള്ള നാടുകളിലും ഒക്കെ അവിടെ അവരുടേതായ ഭാഷ ഉണ്ട് അപ്പം ആ ഭാഷയിലാണ് അവർ വാണിജ്യം വ്യാപാരം അതൊക്കെ നടത്തുന്നത് അവരുടെ അവരുടേതായ രാജ്യത്തിലുള്ള ഐ ആ സ്ഥലത്തുള്ള ഭാഷയിലാണ് അവർ ചെയ്യുക അപ്പം അതാണ് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും അവിടെ പോയിട്ട് മലയാള ഭാഷ കൊണ്ട് പോയികഴിഞ്ഞാൽ അതിനവിടെ ഒരു പ്രസക്തിയും ഉണ്ടാവില്ല കാരണം അവരുടേതായ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തൊള്ളൂ അങ്ങനെ വ്യാപാരം വാണിജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരത്തിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സാധനം വാങ്ങിക്കേണ്ടത് അപ്പോൾ അവിടെ അറിയാത്തൊരു നാട്ടിൽ നമുക്ക് മലയാളത്തിലൊരിക്കലും അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അവരുടേതായ ഭാഷ അറിഞ്ഞുകൊണ്ടേ നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ ആണല്ലോ പറയുക ഇപ്പം നമ്മുടെ നാട്ടിലാണ് കൂടുതലായിട്ടും മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തൊള്ളൂ അവിടെ ഒക്കെ അവരുടേതായ ഭാഷയാണ് അപ്പം അവിടെ നമുക്ക് മലയാളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അവർ അവരുടേതായ ഇംഗ്ലീഷ് ഭാഷയോ കൂടുതലും അങ്ങനെയൊക്കെ ആണ് ചെയ്യുക